ഹലോ അന്ന് ഞാനേ ഒരു ഓര്ഡര് കൊടുത്തിട്ടുണ്ടായിരുന്നേ ആ അതെ അതെ അപ്പോൾ കുറച്ച് ഫുഡ് ഓര്ഡര് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കുറച്ചു നിങ്ങളിങ്ങോട്ട് കൊണ്ടുത്തന്നിട്ടൊന്നുമില്ല അപ്പോൾ എനിക്ക് കുറച്ച് ഞാന് ഓണ്ലൈന് വഴിയാണ് ഓര്ഡര് ചെയ്തത് എനിക്ക് കുറച്ച് കസിന്സ് വരാന് ഉണ്ടായിരുന്നു അപ്പോൾ അവര്ക്ക് പെട്ടന്ന് എന്തോ ഒരു കാര്യം ആയതുകൊണ്ട് അവര് വരുന്നില്ലയെന്ന് പറഞ്ഞു അപ്പോൾ ഞാന് പെട്ടന്ന് ഓര്ഡർ ക്യാന്സര് ആക്കിയേ ഒരാഴ്ചയായി കഴിഞ്ഞ ശനിയാഴ്ച ആണെന്ന് തോന്നുന്നു അവര് വരാമെന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ ആ ഒരു ഉച്ചസമയത്തായിരുന്നു ഓര്ഡർ ചെയ്തത് അപ്പോൾ നിങ്ങള് പാക്ക് ചെയ്യുന്നതിന് മുന്നേ ഞാന് വേഗം വിളിച്ചു പറഞ്ഞിരുന്നു അപ്പോൾ അഡ്വാന്സ് ഞാന് ചെയ്തിട്ടുണ്ടായിരുന്നേ ക്യാഷ് ഞാന് നിങ്ങളെ വിളിച്ചു പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് പൈസ തിരിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് റീഫണ്ട് പക്ഷേ ഇതുവരെ കിട്ടിയിട്ടില്ല അതെന്തായിരുന്നു എന്താരുന്നു പ്രശ്നം എന്തുകൊണ്ടാണ് തരാണ്ടിരുന്നേ അങ്ങനെ ഗൂഗിള് പേന്റെ പ്രശ്നം ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാന് വേറെ നമ്പര് തരില്ലായിരുന്നോ ആ എന്നാൽ ഞാന് നമ്പര് പറയാം നമ്പർ ഞാൻ വാട്ട്സ്ആപ്പ് ചെയ്യാം കേട്ടോ